ആ പൂജാ ഞാൻ നിവ്യാ ആണ് വിളിക്കുന്നത് ആ പൂജാ ഞാൻ വിളിച്ചത് നിങ്ങളവിടെ കുറച്ച് നിങ്ങളെല്ലാരൂടെ കൂട്ട് കുടുംബശ്രീ പോലെ കൂടത്തില്ലേ ഒരു എസ് ജി എം ലെന്തോ അതെന്നാണ് സംഭവം ഓ പത്തുപേരാ അല്ലേ പത്തുപേരുണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റാത്തുള്ളോ പത്തുപേരിൽ കൂടുതലായാൽ പ്രശ്നം ഉണ്ടോ ഇരുപത് പേരല്ലേ നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര പേരുണ്ട് പതിനഞ്ച് പേരുണ്ടല്ലേ എന്നാണ് അതിൽ ചേർന്നോണ്ടുള്ള ഗുണം എന്നാ നമുക്ക് കുടുംബശ്രീ പോലെ തന്നാണോ ആ അപ്പം എന്നൊക്കയാണ് നിങ്ങളതിനകത്ത് ചെയ്യുന്നത് ആ അപ്പം പൈസ അതിനുവേണ്ടിട്ടെന്നാണ് ലോണെടുക്കുവോ തിരിച്ചടക്കാൻ തിരിച്ചടവ് ഉള്ളതാണോ ഇൻട്രസ്റ്റ് കുറവാണ് അല്ലെ അപ്പോൾ നമുക്ക് എല്ലാത്തിനും എടുക്കാവോ കൃഷിക്ക് മാത്രമേ ഉള്ളോ അതോ പിള്ളേരെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അസുഖം ഒക്കെ വരുമ്പോഴൊ അങ്ങനെയാണേലോ എല്ലാത്തിനും കിട്ടും അല്ലേ ആ പിന്നെ പ്രത്യേകിച്ചു വേറെ എന്നാ ഗുണം ഉള്ളത് നമുക്കേ ഇപ്പോൾ കുടുംബശ്രീലാണെലും അതുതന്നെയല്ലേ അപ്പം കുടുംബശ്രീം ഇതും തമ്മിലെന്നാണ് വ്യത്യാസം ആ ഓ ശരി ശരി ശരി ശരി എനിക്കെ നമ്മുടിവിടെ അടുത്തുള്ളൊരു ഒന്ന് രണ്ടുപേര് ഉണ്ടല്ലോ നിങ്ങളുടെ ഗ്രൂപ്പിലാന്നു തോന്നുള്ളത് അവരിങ്ങനെ പറയുന്നത് കേൾക്കാം എനിക്ക് അത് കേട്ടപ്പതൊട്ട് എനിക്കും ഒരാഗ്രഹം ഉണ്ട് ചേരണമെന്ന് ആ ജയഞ്ചിനെ ഞാൻ കേട്ടിട്ടുണ്ട് ഞങ്ങളടവിടുത്തെ ഞങ്ങടടൂത്ത് ഇവിടെ ഒരു ഞങ്ങളുടെ സ്ഥലം വാടകക്ക് ചോദിച്ച് കുറച്ചു പേർ വന്നായിരുന്നു നാല് പേർ അപ്പം അവർക്കിവിടെ ബന്ദി കൃഷി തുടങ്ങണം ഇനി ഓണം വരുവല്ലേ അപ്പം ജയൻ ജിടെയാന്നൊക്കെ പറഞ്ഞു